മത്സ്യബന്ധനത്തിൽ ഇടത്തരം മീന് പിടിക്കാന് പോവുന്ന ഒരു ഫൈബര് ബോട്ട്കളും അതില് തീരെ അന്നന്ന് ഉള്ള ആഹാരത്തിനായിട്ട് പോവുന്നവർ ചില സ്പോഞ്ച് രീതിയിൽ സ്പോഞ്ച് മൂന്ന് സ്പോഞ്ച് നാല് സ്പോഞ്ച് വെച്ച് ഒരു വള്ളത്തിന്റെ ഷേപ്പ് ആക്കി ഒരു ബ്ലാക്ക് വിരി കൊണ്ട് ടൈറ്റ് ആക്കി ആയിട്ടുള്ളതും പിന്നെ ഫൈബര് രീതിയിലുള്ള പല പല ഷേപ്പ് ഉള്ള ഫൈബര് രീതിയിലുള്ള ബോട്ട്കളും ഒരാഴ്ച്ച രണ്ടാഴ്ച പോവുന്ന കടലിൽപ്പോയി നിൽക്കുന്ന വലിയ ഈ ഇരുമ്പിന്റെ സ്ട്രക്ച്ചർ ഉള്ള ഫൈബറ് പൊതിഞ്ഞ വെറൈന് അടിച്ച ബോട്ട്കളും പിന്നെ തടി തടി ബോട്ട്കളും തടി ബോട്ട്കളുമാണ് സാധാരണ നിലവില് ഉള്ളത് മൂന്ന് ദിവസം നാല് ദിവസം ഒക്കെ പോവുന്നതെല്ലാം തടി ബോട്ട്കളാണ് അത് ഉപ്പ് രസം പതിയുന്നതിനാല് വില കൂടിയ ഉപ്പ് രസം തേയ്മാനം വരാത്ത പേയിന്റ്കൾ ആണ് ഇതിൽ ഉപയോഗിക്കാറുള്ളത് നമുക്ക് കൂടുതൽ കപ്പാസിറ്റിയില് മീന് പിടിക്കണമെങ്കില് വലിയ വലിയ ബോട്ട്കളായ തടികൾ ഇരുമ്പിന്റെ സ്റെക്ച്ചർ ഉള്ള ബോട്ട്കൾ ഒക്കെയാണ് പോകുന്നത് അന്നേരം ആവുമ്പോൾ ഐസ് ഫ്രീസ് ചെയ്ത് ഒരാഴ്ചത്തെ രണ്ടാഴ്ചത്തെ മീന് സ്റ്റോറ് ചെയ്ത് യാതൊരു കുഴപ്പവും ഇല്ലാതെ കടപ്പുറത്തോട്ട് തിരിച്ചെത്തിക്കാന് പറ്റുന്നതാണ് നമുക്ക് ഫൈബര് ബോഡ്കളാണ് നമ്മുടെ ഓരോ ദിവസത്തിനുള്ള ഇതില് നമ്മൾ ഫൈബര് ബോട്ട്കളിലൊക്കെയാണ് ഈ ഉപയോഗം ഉപയോഗം വരുന്നത് ഫൈബര് ബോട്ട്കൾ തന്നെയാ ആ കടലിലെ ഓളം അനുസരിച്ച് മേയിന്റെന്സ് രണ്ടോ മൂന്നോ വര്ഷത്തേക്ക് കഴിഞ്ഞിട്ടൊക്കെ മേയിന്റെന്സ് വരത്തുള്ളൂ